കായിക വിനോദങ്ങള് പൊതുവെ നല്ലൊരു പങ്കാണ് ജീവിതത്തിലുള്ളത് കാരണം ഒരു വ്യക്തിക്ക് കായിക വിനോദങ്ങളിലൂടെ അവരുടെ ജോലി ഭാരമായിക്കോട്ടെ അല്ലെങ്കിൽ മൈൻഡിലുള്ള എന്തായിക്കോട്ടെ നമുക്കത് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ കായിക വിനോദങ്ങൾക്കും വളരെ നല്ലൊരു പങ്ക് ഓരോ വ്യക്തിയുടെ ജീവിതത്തില് പങ്കു വഹിക്കുന്നുണ്ട് കായികപരമായിട്ടുള്ള എല്ലാ ഇതിനും ഇന്ത്യയില് ഇപ്പോൾ ഇപ്പോളത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കായിക താരങ്ങളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കായിക വിനോദത്തിലുള്ള ഏതൊരു പരിപാടിയും നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇനിയും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞാന്നു വെച്ച കഴിവുകളുള്ളവരെ മാക്സിമം ഉയരങ്ങളിലേക്ക് എത്താൻ അതിൻ്റെ അധികാരികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയില് ഇപ്പോൾ കായികത്തിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കൗൺസിലായിക്കോട്ടെ എല്ലാം ശ്രമിക്കണം താഴെ താഴെ തട്ടിലുള്ള ഒരു കുട്ടിക്ക് കഴിവുകളുണ്ട് ആ കുട്ടിയെ കഴിവ് അവൻ്റെ കഴിവുകൾ അവൻ്റെ നാട്ടിലായിട്ട് മാത്രം അവസാനിക്കാതെ രാജ്യാന്തര തലങ്ങളിൽ അവൻ്റെ കഴിവുകള് പ്രദർശിപ്പിക്കാൻ എല്ലാം പ്രോത്സാ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയിലെ സ്പോട്സ് കൗൺസിൽ എല്ലാം അതിലെല്ലാം ശ്രദ്ധ കൊടുക്കണം കാരണം കഴിവുള്ള എല്ലാവരുടെയും കഴിവ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ ഇന്ത്യയിലെ കൗൺസിലിനു സാധിക്കണം